ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് ടോയ്ലെറ്റ് സൗകര്യങ്ങളും പെട്രോൾ പമ്പുകൾ ഭക്ഷണസാധ്യ സാധ്യതകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ പല സമയത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ടോയ്ലറ്റ് സൗകര്യം സ്ത്രീകൾക്ക് അത്യാവശ്യമായി ഒരു കാര്യമാണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അത് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ആരോഗ്യകരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ പെട്രോൾ പെട്രോൾ പമ്പുകൾ ഇല്ലാതെ വരുന്നതും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല ഭക്ഷണം ലഭിക്കാത്ത റസ്റ്റോറന്റുകളൊന്നും ഇല്ലാത്ത സാഹചര്യവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്